അതേല്ലോ ആരാണ് വിളിക്കുന്നത് സ്മിതയോ ആ ഹാ ഹാ ആ ഹാ കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ മുപ്പത്തൊന്ന് ആ ആ ആ ഹാ ഹാ

ആ അല്ല ഈ മുപ്പത്തൊന്ന് മു അല്ല മുപ്പത്തൊന്നാം തിയതി ബിരിയാണി എന്നല്ലെ പറഞ്ഞ് എന്ത് ബിരിയാണിയായിരുന്നു ഹാ ഹാ ഹാ ആ ആ ഞാന് അത് അത് അന്ന് ശെരിക്കും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയത് ഇവിടുത്തെ വേറൊരു സ്റ്റാഫായിരുന്നേ അപ്പം പക്ഷെ അത് നമ്മള് ഫ്രഷായിട്ട് മേടിച്ച ചിക്കാനായിരുന്നു അങ്ങനെ വരാൻ ഒര് സാധ്യതയും ഇല്ല നമ്മുടെ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് വരെയും അങ്ങനെ ആർക്കും ഒരു മിസ്റ്റേക്കും ഉണ്ടായിട്ടില്ല നിങ്ങളുടെ വേ നിങ്ങൾക്ക് വേറെന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകൾ ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നോ അല്ല ഇനി ഇനി യാത്രയുടെ വല്ല ബുദ്ധിമുട്ട് കൊണ്ട് സംഭവിച്ചതാണോ ഇനി അന്ന് ഈ ബിരിയാണി കൂടാതെ വേറെന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിൻ്റെയാണോന്ന് അറിയത്തില്ലല്ലോ അന്നുപിന്നെ ആ ആ ആ അതെ പക്ഷേ പക്ഷേ നമ്മുടെ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് വരെ ഇന്ന് വരെ ആരും ഒര് കംപ്ലെയിൻറ്റ് പറഞ്ഞിട്ടില്ല റോഡ് സൈഡിലുള്ള കടയാണ് ടുറിസ്റ്റ്കള് വരുന്ന സ്ഥലം ആണ് അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാര് വന്ന് സ്ഥിരമായിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കുന്നതാണ് എനിക്ക് ഈ തോന്നുന്നത് എനിക്ക് ഈ തോന്നുന്നത് നിങ്ങൾക്ക് ഈ ഭക്ഷണം പിടിക്കാത്തത് കൊണ്ടായിരിക്കണം കാരണം അന്ന് കഴിച്ചപ്പോൾ അന്ന് കുറേപ്പേർ വന്നു ഇവിടെ കഴിച്ചതാണ് പക്ഷെ വേറെ ആരും ഇവിടെ കംപ്ലെയിൻറ്റ് ചെയ്തിട്ടില്ല അതെ ആ ആ ആ അന്വേഷിക്കാം ഓക്കേ ആ ആ ഓക്കേ ആ ഞങ്ങളിനി കൂടുതൽ ശ്രദ്ധിച്ചോളാം ഇനി എപ്പഴ് നമ്മള് കണ്ടാല് ശ്രദ്ധിച്ചോളാം അപ്പോൾ ശരി ശരി ശരി താങ്ക്യൂ ആ